എടാ ഞാനേ ഒരു കേബ് ബുക്ക് ചെയ്യണമായിരുന്നെ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒര് ക്യാബ് ബുക്ക് ചെയ്യണം എനിക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെയാണ് എത്തേണ്ടത് അപ്പോൾ നിനക്ക് അറിയണ ഏതെങ്കിലും ഏജൻസിയോ ടാക്സി സർവീസ് നടത്തണ ആരെങ്കിലും അറിയോ നിനക്ക് ഇപ്പോൾ മറ്റേ ഒരു ഏജൻസി ഉണ്ട് ഇവിടെ പാലക്കാട് ഉള്ളത് ഏജൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല എനിക്ക് അവരുടെ റേറ്റിംഗ് എങ്ങനെയാണ് നല്ല പെരുമാറ്റമാണോ നമുക്ക് ഫേമിലിയാണ് അപ്പോ ൾ പറയും കൂടെ ഉള്ള കുറച്ച് ഗേൾസൊക്കെയാണ് ഉള്ളത് കസിൻസൊക്കെ ആയിട്ട് അപ്പോൾ പോകുമ്പോൾ അവർക്ക് ഒരു ഡിസ്കംഫേർട്ട് ഫീല് ചെയ്യാൻ പാടില്ലല്ലോ നമുക്ക് എല്ലാവരുമായിട്ട് പോകുമ്പോൾ നല്ല വൈബായിട്ടുള്ള ആളെല്ലാം വേണമല്ലോ അപ്പോൾ അവിടെ എങ്ങനെയാണ് അവിടുത്തെ ഡ്രൈവറിൻ്റെ സ്വഭാവം എങ്ങനെയാണ് അതേപോലെ നല്ല ഡ്രൈവിങ്ങാണോ നല്ല സർവീസ് ആണോ അവര് പ്രൊവൈഡ് ചെയ്യാറുള്ളത് എനിക്ക് അതിൻ്റെ റേറ്റിംഗ് ഒക്കെ ഒന്ന് എന്നോട് പറഞ്ഞുതരാൻ പറ്റുമോ നല്ല റേറ്റിംങ്ങാണോ അവിടുത്തെ കാര്യങ്ങള് പൊതുവെ നല്ല റേറ്റിംഗാണ് കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു പക്ഷെ നിനക്ക് കൂടുതൽ അറിയാമല്ലോ അതുകൊണ്ട് നിൻ്റെ നിനക്കും അത്രയും പരിചയം ഉള്ളതുകൊണ്ടാണ് നിൻ്റടുത്ത് തന്നെ ചോദിച്ചത്